ഹലോ ഇത് സുപ്രിയയുടെ അച്ഛനാ ത് അതേ പറഞ്ഞോ മോളിതുവരെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വരുന്നുണ്ട് അവൾക്ക് ബേസിക്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷെ ഇപ്പോൾ അവൾക്ക് കാര്യങ്ങൾ മനസിലായി വരുന്നുണ്ട് ഉണ്ട് പക്ഷെ ഇച്ചിരി ചില കാര്യങ്ങൾ അവൾക്ക് ഇച്ചിരി പാടുണ്ട് അതായത് അവൾക്ക് ടെമ്പോ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ താളം ഇങ്ങനെ കീപ്പ് ചെയ്ത് വരിക അങ്ങനെയുള്ള തുടക്കം ഇച്ചിരി പാടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവൾ പിടിച്ച് വരുന്നുണ്ട് മനസിലാകുന്നുണ്ട് അവൾക്ക് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ അത് മോളിൽ ആ ഒരു കമ്പം അറിയാനും ഉണ്ട് അച്ഛന്റെ ആ ഒരു കാര്യങ്ങൾ ആ നല്ലപോലെ കാര്യങ്ങൾ മനസിലാക്കി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ലപോലെ

പക്ഷെ മുന്നോട്ട് അവൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം അതായത് ആ ഒരു ഈ ഒരു റുട്ടീൻ വിട്ടുപോകരുത് ഇവിടെ സെഷൻ ഇവിടെ വന്നില്ലെങ്കിലും അവിടെ വെച്ച് തന്നെ വീട്ടിൽ വെച്ച് തന്നെ കാര്യങ്ങൾ പഠിക്കുക പിന്നെയും പിന്നെയും അത് വായിച്ച് നോക്കുക അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ ഒരു എഫർട്ടും കൂടെ ആണ് ഇതിനെ എന്തോരം പെട്ടെന്ന് നീങ്ങാൻ പറ്റുമെന്ന് നിയന്ത്രിക്കുന്നത് അത് സാരമില്ല അതെല്ലാം ഇതിന്റെ ഒരു ഭാഗം ആണല്ലോ പക്ഷെ നമ്മൾ കഴിവതും ശ്രമിക്കുക ഇത് എന്തോരം ടൈം ഇടുന്നോ അത്രത്തോളം നമുക്ക് വളർച്ച കാണാൻ പറ്റും അത്രേയുള്ളൂ അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അവളെ അതിനായിട്ട് എൻകറേജ് ചെയ്യുക ഒരിക്കലും അവൾ തെറ്റു വായിക്കുകയോ അല്ലെങ്കിൽ തെറ്റിച്ചു വായിക്കുകയോ എന്നുവെച്ച് നിങ്ങൾ അതിനെ ഡിസ്കറേജ് ചെയ്യാതെ കളിയാക്കാതെ എന്താണെന്നു വെച്ചാൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഒരു ഇത് കൊടുക്കുക തീർച്ചയായും പറ്റും എപ്പോഴും നമ്മൾ മോളിലെ ബേസിക്സ് ആണല്ലോ ഫോക്സ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ കൂടുതലായിട്ട് ബേസിക്സ് ഒക്കെ പറഞ്ഞ് നമുക്ക് ഒരു അതൊരു സ്ഥിരം ആവുമ്പഴത്തേക്കും നമുക്ക് മുന്നോട്ട് അവളെ ഇതായിട്ട് ഫോകസ് ചെയ്യാൻ അതായത് കലോത്സവത്തിന് അവളുടെ പേർഫോർമൻസും കാര്യമായിട്ട് ഫോകസ് ചെയ്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുവെ അപ്പോൾ ബേസ് നമുക്ക് നല്ലൊരു ഇത് ആവട്ടെ ആയിട്ട് നമുക്ക് നല്ലായിട്ട് അതിലോട്ട് ഒരു ഫോക്കസ് ചെയ്ത് അപ്പോൾ ചെയ്യാൻ പറ്റും ഇച്ചിരികൂടെ നല്ലതായിട്ട് നമുക്ക് നമുക്ക് അതിനായിട്ട് തയ്യാറെടുക്കാൻ നമുക്ക് സഹായിക്കാൻ പറ്റും ഓക്കെ ഓക്കെ താങ്ക് യു